ഇപ്പോൾ കുട്ടിക്കാലത്ത് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കൂടുതൽ നല്ല ടൂർ പോയതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൽ നിന്നാണ് ക്ലാസ്സിൽ നിന്ന് ടൂർ പോയതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എറണാകുളം ആ സ്ഥലത്തേക്കാണ് പോയത് ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ കൂട്ടുകാരുമൊത്തിട്ട് സ് യാത്രയൊക്കെ പോവാൻ അങ്ങനെ എറണാകുളത്തേക്ക് നമ്മൾ യാത്രയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഒരു ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ അന്ന് ടൂറിസ്റ്റ് ബസ്സിലും കാര്യങ്ങൾക്കൊക്കെ കയറുന്നത് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ എടുത്തത് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നൊരു ഒമ്പതുമണിയൊക്കെ ആയപ്പോളാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നമ്മൾ ആദ്യം പോയത് സിൽവർ സ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ള ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അവിടെയുള്ള ഒരു സ്ഥലത്താണ് പോയത് അപ്പോൾ അവിടെ പോയി ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ പിന്നെ അതെല്ലാം കറങ്ങികഴിഞ്ഞതിന് ശേഷം എന്തുചെയ്തു ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് പോയി അവിടുന്ന് നേരെ നമ്മൾ അതെല്ലാം കറങ്ങി അങ്ങനെ കറങ്ങിയിട്ട് നേരെ നമ്മൾ പോയത് എറണാകുളത്ത് ഇത് മറൈൻ ഡ്രൈവിലേക്കാണ് മറൈൻ ഡ്രൈവ് എല്ലാം കറങ്ങിക്കഴിഞ്ഞ് കുറേ മറ്റേ നമ്മുടെ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത ആ സ്ഥലത്തൊക്കെ പോയി അതൊക്കെയാണ് മെയിൻ ആയിട്ട് എൻ്റെ ഓർമ്മ എന്നൊക്കെ പറഞ്ഞാൽ